ഞാൻ കളരിയും കരാട്ടയൊക്കെ പഠിച്ചിട്ടുണ്ട് അതായത് എൻ്റെ കല്യാണത്തിനു മുൻപ് വരെ ഞാൻ കളരി ക്ലാസിനും കരാട്ട ക്ലാസിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കരാട്ടയിൽ ഞാൻ ബ്ളാക്ക് ബെൽറ്റാണ് ഇപ്പം അതുകൊണ്ടുതന്നെ ആ ബ്ളാക്ക് ബെൽറ്റ് കിട്ടിയതിന് ശേഷം ഞാൻ കുട്ടികളെ കുറച്ച് അതായത് പൈസയൊന്നും അല്ലാണ്ടുതന്നെ നമ്മളവിടെ നമ്മുടെ സാറിൻറവിടെ പിന്നെ കുട്ടികളെ പരിശീലിപ്പിക്കുമായിരുന്നു നമുക്ക് കൂടുതലും കാരാട്ടെ ക്ലാസ് കളരി ക്ലാസ്സൊക്കെ ഈവനിംങ്ങാണ് വരുന്നത് കളരി ക്ലാസ് നമുക്ക് മോണിങ്ങും ഉണ്ട് കരാട്ടെ ക്ലാസ് ഞാൻ കൂടുതലും ഇവനിങ്ങാണ് അതായത് ഞാൻ പിന്നെ ഇവനിങ്ങൊരു ഒരു മണിക്കൂറാണ് ഞാൻ പഠിപ്പിക്കാൻ പോക്ക് ഞാനും പഠിക്കുന്നുണ്ട് ഞാൻ പഠിപ്പിച്ച് കൊടുക്കുന്നും ഉണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കളരിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാലമേ പഠിച്ചുള്ളൂ കളരി പഠിക്കാൻ കരാട്ടേൻ്റെ ബ്ളാക്ക് ബെൽറ്റ് കിട്ടടിയതിന് ശേഷമാണ് ഞാൻ കളരിയിലേക്ക് നോക്കിയത് കളരി പഠിച്ച് ഒരു വർഷത്തോളം പഠിച്ച് ഏകദേശമൊക്കെയായി അപ്പോഴത്തേക്കാണ് കല്യാണം കഴിഞ്ഞത് പിന്നെ ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെ ആയിട്ട് കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ട്രാൻസ്ഫർ കാര്യങ്ങളൊക്കെയായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ ഞാനതും ഒഴിവാക്കിയതാണ് പിന്നെ മോനും അതായത് ആദ്യമൊക്കെ ഞാനമ്മേൻറടുത്താക്കിയിട്ടായിരുന്നു പോക്ക് പക്ഷേ ഇപ്പം ഇവിടെയാരും ഇല്ലാത്തതു കൊണ്ടു മോനെ എവിടെയും ആക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരവസ്ഥ ആയതുകൊണ്ട് ഇപ്പം എനിക്ക് നിർത്തേണ്ടി വന്നു